മലയാള ഭാഷയെന്ന് പറയുന്നത് ബാക്കിയുള്ള ഇന്ത്യൻ ഭാഷകളിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമെന്താണെന്ന് വെച്ചാലിതിൽ പല ഉച്ചാരണങ്ങളും ഒരുപാട് കൂടുതലുള്ള അക്ഷരങ്ങളും ആ അക്ഷരങ്ങൾ കൊണ്ടുള്ള പല വാക്കുകളുമാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രയോഗം പ്രയോഗങ്ങൾ വരുന്നത് കൂടുതലും ഈ പഴഞ്ചൊല്ലുകളുപയോഗിച്ചിട്ടുള്ളതാണ് ഇപ്പം അണ്ണാറക്കണ്ണനും തന്നാലായത് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്നൊക്കെ പറഞ്ഞ് അപ്പം അതൊക്കെ നല്ല ഭംഗിയുള്ള രസമുള്ള അതിന് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റി നമുക്ക് പിന്നേയും സംസാരിക്കാൻ കിട്ടുന്ന അങ്ങനത്തെ ചില പ്രയോഗങ്ങളാണത് മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ അഭിമാനം തോന്നുന്നുണ്ട് കാരണം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു ഭാഷയും എന്നാൽ മലയാളം സംസാരിക്കുന്നവർക്ക് ബാക്കി ഭാഷകൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുകയും പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മലയാളി എന്ന നിലയിൽ അതിന് വളരെയധികം സന്തോഷവും ഇതുപോലുള്ളൊരു ഭാഷ ഇത്രയും സാംസ്കാരികമായി പൈതൃകമുള്ള ഒരു ഭാഷ സംസാരിക്കുന്നതിൽ വളരെ അധികം സന്തോഷമുണ്ട്